ആ ഹലോ ആ അതേയിരുന്നു ആ അതെ അതെ അക്ഷയ് കുമാറിനെ അറിയാം ആ അഡ്മിഷൻ എടുക്കാൻ വേണ്ടീട്ടായിരുന്നുല്ലേ എന്താണ് എയ്ജ് എന്താ വരുന്നത് പതിനഞ്ച് ആ വരുന്നത് ഓക്കെ പേരെന്തായിരുന്നു സാനിയ ഓക്കെ അപ്പം എന്ന് തൊട്ടാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പം പ്ലാൻ ചെയ്യുന്നത് അടുത്ത ആഴ്ച്ച തൊട്ടാണല്ലേ അപ്പം മോർണിംഗ് ബാച്ചിലേക്കാണോ ഈവെനിംഗ് ബാച്ചിലേക്കാണോ നോക്കുന്നത് ഈവനിംഗ് ബാച്ചിലേക്ക് വേണ്ടീട്ടാല്ലേ ഓക്കെ നമുക്ക് ഒരു അഞ്ച് മണി നാല് മണി ആ റേഞ്ചിലാണ് നമുക്ക് തുടങ്ങുന്നത് നാല് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ക്ലാസ് കാര്യങ്ങളക്കെ ഉള്ള പിള്ളേരാണെന്ന് ഉണ്ടെങ്കിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം എടുക്കുല്ലോ നാല് മണി തൊട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഇവിടേക്ക് വന്നിട്ട്

തീരുന്നത് നമുക്ക് ഈ ഇരുട്ടാവുന്നതൊക്കെ നോക്കിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് മണിക്കൂർ ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ആ പിന്നെ മോർണിംഗ് കയറുന്നുണ്ടെങ്കിൽ രണ്ടും കയറണ ഓപ്ഷൻ ഉണ്ട് നമുക്ക് മോർണിംഗ് ഇപ്പം പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഏഴു മണിക്കും രാവിലെ ഏഴു മണി തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഴു മണി തൊട്ട് നമ്മൾ പത്ത് മണി വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഏത് സമ ആ സ്കൂളിൽ പോകുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഇത് വരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ ലീവുള്ള ദിവസങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ആ അപ്പം അതിനനുസരിച്ച് ടൈമിങ് നോക്കിയിരുന്നിട്ട് എപ്പം വേണമെങ്കിലും വരാവുന്നതാണ് നമുക്ക് രണ്ട് ടൈമിലേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് സെക്ഷനാക്കാനാണ് നമ്മൾ കൊടുക്കുന്നത് ഈവനിംഗിലേക്ക് ആണെന്നുണ്ടെന്നുണ്ടങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ടൈമ് കാര്യങ്ങളൊക്കെ കൂട്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ആ അഡ്മിഷൻ്റെ എങ്ങനെയാണ് വരുന്നത് ചെയ്യാം നമുക്ക് മന്ത്ലി ഫീസ് കാര്യമായിട്ടൊന്നും വരുന്നില്ല നമുക്ക് ജോയിൻ ഫീസ് മാത്രമെ വരുന്നുള്ളു നമ്മുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ ജോയിൻ ഫീസ് മാത്രമേ നമുക്ക് വരുന്നുള്ളു അത് വരുന്നത് തൗസൻഡ് ആണ് വരുന്നത് അതിനുള്ളിൽ നമുക്ക് ജേഴ്സി കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളു ജേഴ്സി മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തൊള്ളു ബാക്കി സാധനങ്ങളൊക്കെ പുറത്ത്ന്ന് വാങ്ങണം നമ്മൾ ജേഷ്സി മാത്രമെ നമ്മൾ പ്രൊ പ്രൊവൈഡ് ചെയ്യുന്നൊള്ളുട്ടോ ഇതിന് മുമ്പ് എവിടെങ്കിലും ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ സ്കൂൾ ടീമിൽ ഉള്ളതാണല്ലേ അപ്പോൾ ഓൾ റെഡി കിറ്റ് കാര്യങ്ങളൊക്കെ ഓൾ റെഡി കയ്യിൽ ഉണ്ടാകുവല്ലോ ആ അപ്പം പിന്നെ വേറെ സാധനങ്ങളൊന്നും വാങ്ങേണ്ടി വരുന്നില്ലല്ലോ അഡിഷനലായിട്ട് എന്നത്തേക്കാ അപ്പം വരുന്ന ഡേറ്റ് എന്നത്തേക്കാന്നാ പറഞ്ഞേ ആ വരാറ് അറിയുമ്പഴേക്ക് വരാം അപ്പം വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി ഞാൻ പേ പേര് കാര്യങ്ങളൊക്കെ വെച്ച് മെൻഷൻ ചെയ്ത് വെച്ചേക്കാം ഇങ്ങനെ ഇത് പറഞ്ഞ് വെച്ചേക്കാം ഓൾ റെഡി അപ്പം വരുമ്പോൾ ഒന്ന് വിളിക്കുവാണെന്ന് ഉണ്ടെങ്കിൽ ബാക്കി ഇതാക്കാം പിന്നെ ജോയിനിങ്ങിന് വരുന്ന സമയത്ത് ഒരു തൗസൻഡ് പേയ്മെന്റ് ചെയ്യണ്ടി വരും പിന്നെ ഇതനുസരിച്ച് വന്ന് ഈങ്ങനാണ് വെച്ചാൽ നിങ്ങളുടെ ടൈമിംഗ് അനുസരിച്ച് വരാം ഡെയിലി എപ്പോഴാണ് തുടങ്ങണെ കാര്യങ്ങളക്കെ നമുക്ക് പറഞ്ഞ് തരും പിന്നെ നമുക്ക് ഇതിനു കളിക്കക്കെ കൊണ്ട് പോകുന്നതക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഇടക്കിടക്കക്കെ ഓരോ ടൂർണ്ണമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അതിന് പോകാൻ വേണ്ടി മാത്രാണ് നമ്മൾ കൊണ്ട് പോവ്വാ കൊണ്ട് പോകും നമ്മുടെ ടീമീന്ന് കൊണ്ട് പോവ്വാ കാര്യങ്ങളൊക്കെ പക്ഷേ അതിനുള്ള ചിലവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടി വരും ആ ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളക്കെ നമ്മൾ ചെയ്ത് തരും അതിന് വേണ്ടീട്ടൊള്ള പ്രോസസിങ് ഫീ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടി വരൂട്ടോ ആ പാരൻറ്റ് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ വന്നാലും കുഴപ്പമില്ല ഇല്ലങ്കിലും കുഴപ്പമില്ല ഡീറ്റെയിൽസ് കാര്യങ്ങളും ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവരൊരു സമ്മതപത്രം കാര്യങ്ങളും കൂടി കൊണ്ട് വന്നാൽ മതി വേറൊന്നും ആവശ്യമില്ല പേരന്റായിട്ട് വരുവാണെന്നുണ്ടങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല അവർ വന്നിട്ട് എഴുതി എടുത്തിട്ട് പൊയ്ക്കോണം ആ ഓക്കേ അങ്ങനെ ആണെങ്കിൽ വന്നാൽ മതി നോക്കിയിട്ട് വന്നാൽ മതി ഓക്കെ ഓക്കെ ഓക്കെ